നമ്മുടെ പ്രദേശത്ത് ട്രാവൽ കമ്പനികൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ട്രാവൽ കമ്പനികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ടൂർ പോവുന്നതും നല്ല നമ്മളുമായിട്ട് അത്ര അടുപ്പം ഉള്ള ട്രാവൽ കമ്പനികളാണ് അത് ഏജൻറ്റ്മാരായാലും നമുക്ക് പരിചയം ഉള്ളവരാണ് ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മളും അവരെ വണ്ടിയാണ് നമ്മൾ കൂടുതലും വിളിക്കുന്നത് അതിന് നമ്മളെ സ നമ്മളെ കൊണ്ട് പോകുമ്പോൾ അവർ നമ്മളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ അവർ അനുസരിച്ച് നമ്മളെ കൊണ്ട് പോവുകയും നമ്മൾ പറയുന്ന സ്ഥലങ്ങളിൽ നിർത്തി നിർത്തി നിർത്തി കൊണ്ട് പൊവുകയും പിന്ന ആ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ച് തന്ന് അത് നമുക്കതിനെ കുറിച്ച് പറഞ്ഞ് തരികയും എല്ലാം ചെയ്യുന്ന ഏജൻസികളാണ് ദേവദേവൻ എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മൾ കൂടുതലും വിളിക്കുന്നത് അവർ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ അതനുസരിച്ച് പോകും പിന്നെ അതിൻ്റെ റേറ്റ് എല്ലാം കുറച്ച് തരും ആ രീതിയിലാണ് നമ്മൾ പോവുന്നത് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ട്രാവൽ കമ്പനികളും ഏജൻറ്റ്മാരും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ്